ഞാൻ ഈ ഇടെ ഓൺലൈനിലൊരു ഹെഡ്സെറ്റ് വാങ്ങിയായിരുന്നു ശരിക്കും അത് ഭയങ്കര ലാഭം ആയിപ്പോയി എനിക്ക് കിട്ടിയത് എന്താന്ന് ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ വില അല്ലാതെ കടകളിൽ ചോയിച്ചപ്പം അത് കുറെ കൂടുതലായിരുന്നു ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഉപകരമുള്ളൊരു കാര്യമാണ് എന്നു വെച്ചാൽ കുട്ടികൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും ഓൺലൈൻ ക്ലാസ്സോ അങ്ങനെയോ അല്ലേ പാട്ട് കേൾക്കാനോ അങ്ങനെ എന്തിന് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഹെഡ്സെറ്റാണ് ഞാൻ വാങ്ങിയത് ആ അത് വേറൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ അത് ഓൺലൈൻ ആയോണ്ട് മോശമാണ് എന്ന് ചിലർക്കൊക്കെ ഒരു അഭിപ്രായം ഉണ്ട് പക്ഷേ അങ്ങനെയല്ല ശരിക്കും നല്ല പ്രോഡക്റ്റുവാണ് നല്ല നല്ല ഒരു യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് ഞാൻ മേടിച്ചത് പിന്നെ ഇപ്പം നിങ്ങളൊക്കെ ആണേലും വാങ്ങുവാണെങ്കിൽ അങ്ങനെ ഓൺലൈൻ വാങ്ങിയ നല്ല എന്തെന്ന് ചോദിച്ചാൽ ഇപ്പം വീട്ടിലിരുന്നിപ്പം മിക്കവർക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കും അല്ലാതെ ഇപ്പം കുട്ടികളുള്ളവർക്കും ഒക്കെ തന്നെ നല്ലതാണ് ഈ ഹെഡ്സെറ്റ് പിന്നെ ഒരു കാര്യം ഉണ്ട് ഈ കുട്ടികളക്കേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹെഡ്ഫോൺ വെച്ചിട്ട് ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ചില പരിപാടികളക്കെ കുട്ടികൾകൊക്കെ ഉണ്ട് അന്നേരവാണിത് താഴെ പോകുന്നത് അതപ്പം നിങ്ങൾ ശ്രദ്ധിക്കണ്ടത് എന്താന്ന് ചോദിച്ചാൽ ഇത് തലേ വെച്ചോണ്ട് ഈ പിള്ളേർ ഡാൻസ് കളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇത് താഴെ പോയാൽ അത് അതിൻ്റെ ഇത് കേടാവും അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്തായാലും സാധനം നല്ലതാണ് ഓൺലൈൻ മേടിച്ചു അതുകൊണ്ടത് മോശമാണന്നൊന്നുല്ല കടേന്ന് മേടിച്ചതിലും വളരെ നല്ല പ്രോഡക്റ്റാണ് ഓൺലൈൻ മേടിച്ചത് പിന്നെ വേറൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആർക്ക് വേണേലും ജോലിക്കാർക്കോ അമ്മമാർക്കോ അല്ലേ കുട്ടികൾക്കോ ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിക്കാം അതാണ് അതിൻ്റെ വലിയ വലിപ്പമോ ഇല്ല നമുക്ക് കൊണ്ട് നടക്കാനും ഒക്കെ ഉപകാരമുള്ളതാണ് ഈ ഹെഡ്ഫോൺ മേടിച്ചത് ശരിക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു